ഹലോ എയർലൈനല്ലേ പിന്നെ ഞാനൊരു ഫ്ലൈറ്റ് ബുക്കെയ്തിരുന്നു അതില് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്കൊരു എമർജൻസി എക്സിറ്റ് സീറ്റ് വേണ്ടിയിരുന്നു അപ്പോള് അതില് എനിക്ക് എന്താണെന്നുവച്ചാല് ഞാൻ എനിക്ക് നല്ല ഹൈറ്റ് കൂടുതലാണ് അതായത് ഞാൻ നല്ല ഉയരമുള്ള ആളാണ് അപ്പോള് അതുകൊണ്ട് ഒരു സുഖസൗകര്യത്തിനായി എനിക്ക് എമർജൻസി എക്സിറ്റ് സീറ്റ് വേണ്ടിയിരുന്നു അതിന് എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിന് അപ്പോള് എന്തൊക്കെ എന്തൊക്കെയാണു വേണ്ടത് ഇനി എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലാവുകയൊന്നും ചെയ്യില്ലല്ലോ എനിക്കു പെട്ടെന്ന് തരാൻ പറ്റുമോ സീറ്റ് ഇപ്പോള് എന്തേലും ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്താലേ ലഭിക്കുകയുള്ളുവോ അതോ ഇനി വേറെയെന്തെങ്കിലും ചെയ്യണോ ഇതിൻ്റെ ഇപ്പോള് ഈ സമയത്തുതന്നെ ചെയ്തതുകൊണ്ടു പ്രശ്നമൊന്നും വരില്ലല്ലോ പിന്നെ എമർജൻസി ആയതുകൊണ്ടു ചെയ്തുതരാൻ പറ്റില്ലേ പിന്നെ അതിന് എന്തൊക്കെ എന്തെങ്കിലും രേഖകളോ പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും വേണോ പിന്നെ എന്താണ് ഇതിനെന്തേലും ചിലവായി ക്യാഷ് എന്തേലും പൈസ എന്തേലും വേണമോ അതിന് ഉണ്ടെങ്കില് ചോദിക്കാനായിരുന്നു അപ്പോള് ഓക്കെ താങ്ക്യൂ